ഞാൻ ഏറ്റവും കൂടുതലിഷ്ടപ്പെടുന്നത് ക്രിസ്ത്യൻ ചാനലുകൾ കാണാനാണ് എനിക്ക് ഗുഡ്നെസ്സും ശാലോംവാണ് കാണുന്നത് ഗുഡ്നെസിനകത്തും ശാലോംവുടെയും വിശുദ്ധ കുറുബാനയും അതുപോലെ വചന പ്രഭാഷണവും ധ്യാനങ്ങളൊക്കെ കാണാറുണ്ട് പിന്നെ വീട്ടിൽ ന്യൂസ് കാണാറുണ്ട് മലയാള മനോരമയിലും പിന്നെ ഏഷ്യാനെറ്റ് സൂര്യ അങ്ങനെ എല്ലാ ചാനലൂടെ ഓരോ ന്യൂ ന്യൂസും അതുപോലെ തന്നെ സീരിയലുകളൊക്കെ ഞാനൊത്തിരി ഇഷ്ടപ്പെടില്ല പക്ഷേ വീട്ടിലമ്മയും ഹസ്ബൻഡൊക്കെ അത് കാണാറുണ്ട് പിന്നെ ഹിന്ദി ചാനലുകളിലൂടെ ഹസ്ബൻഡ് സിനിമയും പിന്നെ അതുപോലെ തന്നെ പാട്ടുകൾ കേൾക്കാറുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കിഷ്ടം പിന്നെ പത്ര ചാനലുകളാണ് അതുപോലെ ശെക്കൻഡ്ലൂടെ സെക്കൻഡിലൂടെയും വിശുദ്ധ കുറുബാനയിൽ പ കാണാറുണ്ട് പിന്നെ ഒത്തിരി പിന്നെ സ്പോർട്സ് ന്യൂ ന്യൂസ് കാണാറുണ്ട് പിന്നെ മരണത്തിൻ്റെ പറ്റിയുള്ള ഇത് ന്യൂസിലൂടെ കേൾക്കാറുണ്ട് അതുപോലെ തന്നെ ഒത്തിരിയേറെ ഹിന്ദി ഹിന്ദി പാട്ടുകൾ കേൾക്കാറുണ്ട് ഒത്തിരി പിന്നെ ഇംഗ്ലീഷിൻ്റെ ഒരു നല്ല സിനിമകളൊക്കെ ചില സമയങ്ങളിലൊക്കെ നോക്കാറുണ്ട് സിനിമയോട് താൽപ്പര്യം ഇല്ല പക്ഷേ എന്നാലും ചിലതൊക്കെ നല്ലത് കാണുന്ന കാണുന്ന കാണാറുണ്ട് ഏറ്റവും കൂടുതലിഷ്ടം മലയാളമാണ് മലയാള ഭാഷയും ദൈവീകപരമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ കാണാൻ കേൾക്കാനായിട്ട് ഇഷ്ടം ന്യൂസ് അത്യാവശ്യമായ കാര്യമാണ് ന്യൂസ് കാണാറുണ്ട് പിന്നെ വീട്ടിലമ്മയും ഹസ്ബൻഡും സീരിയലും സിനിമയും കാണാറുണ്ട് പിന്നെ ഒത്തിരിയേറയും ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാവും പിന്നത് പോലുള്ള അപകടങ്ങളെയും പെട്ടന്നുള്ള മരണങ്ങളൊത്തിരി പേരുടെ കാര്യങ്ങളെല്ലാം ഈ ന്യൂസിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പഴയ കാലത്തൊക്കെയാണെങ്കിൽ പേപ്പറുകളിലായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് ടി വീലൂടെ ന്യൂസിലൂടെയും ലോക കാര്യങ്ങളൊക്കെ അറിയുവാനും സാധിക്കുന്നുണ്ട് മറ്റുള്ള മക്കളൊക്കെ വെളി സ്ഥലത്തിലായിരിക്കുമ്പോഴും അവരുടെ കാര്യങ്ങളെല്ലാമും നമുക്ക് ന്യൂസിലൂടെ കേൾക്കാൻ സാധിക്കുന്നുണ്ട് ഈ ചാനലൂ ഇത് ഇങ്ങനെയുള്ള ഈ ചാനലൂടെ ഒത്തിരിയേറെ മക്കൾക്ക് ഇതിലൂടെ നല്ല അനുഭവങ്ങളാണുണ്ടാകുന്നത് മലയാളം കൂടുതലിഷ്ടം മലയാളമാണ് മ കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കുന്നത് കൊണ്ട് സാധിക്കുന്നത് ന്യൂസിലൂടെയാണ് നമുക്കറിയാൻ പിന്നെ ദൈവീക ചാനലുകളെല്ലാം ഈ ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും കൂടുതൽ ദൈവാനുഭവം ലഭിക്കുന്ന കാര്യമാണെന്ന് പറയുന്നു പിന്നെ മാ മറ്റുള്ള മക്കളെയൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള മക്കളൊക്കെയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഈ ന്യൂസിലൂടെയൊക്കെ അവരുടെ കാര്യങ്ങളെല്ലാം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു അതൊത്തിരിയേറെ സന്തോഷമാണ് ഈ ചാനലൂടെല്ലാ ദൈവം എല്ലാ മക്കളേയും അനുഗ്രഹിക്കട്ടേയെന്ന് പ്രാർത്ഥിക്കുന്നു ഇത്രേം പറഞ്ഞ് കൊണ്ട് നിർത്തുന്നു